ഹലോ സ്വിഗി അല്ലെ ഞാൻ എൻ്റെ അനുജത്തിയുടെ വിവാഹത്തിന് വേണ്ടി ഒരു ആയിരം ജിലേബി വേണമായിരുന്നു ഞാൻ കുറെ സ്ഥലങ്ങളിൽ വിളിച്ച് അന്വേഷിച്ചു അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെയെങ്ങും ഇല്ല അപ്പം ഞാൻ ഇപ്പം ഇതിനുമുമ്പ് വിളിച്ച കടയിൽ വിളിച്ചപ്പഴാണ് അറിഞ്ഞത് നിങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ ലഭ്യമാകുമെന്ന് ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ആയിരം ജിലേബിയോ അല്ലെങ്കിൽ ലഡുവോ അങ്ങനെ മധുര പലഹാരം എന്തെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുമോ ഞങ്ങളുടെ വീടിൻറ്റടുത്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ സമീപപ്രദേശത്ത് എവിടെയേലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമയത്തിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുതരാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഒരു മൂന്നുമണിക്ക് മുൻപൊക്കെ ആയിട്ട് ഉച്ചകഴിഞ്ഞത്തേക്കാണ് ഫംഗ്ഷൻ വച്ചേക്കുന്നത് അപ്പം ഇത്രയും ബൾക്കായിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം മറ്റുള്ളവരുടെ അടുത്തെല്ലാം വിളിച്ചന്വേഷിച്ചപ്പം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഡെലിവറി ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് അപ്പം അങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇത്ര ലോഡ് ബൾക്കായിട്ട് എടുക്കുമ്പം ഓഫറ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടല്ലോ അല്ലേ അപ്പം ആ ഓഫറിൽ തന്നെ ഞങ്ങൾക്ക് തരാൻ നോക്കുക കാരണം ഇത്രയും ബൾക്കായിട്ടെടുക്കുന്നതാണ് അപ്പം ജിലേബിയോ ലഡുവോ എന്താന്ന് വച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങളെയൊന്ന് അറിയിക്കണം കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും മ മധുരപലഹാരം മതി